കർഷകര് തങ്ങളുടെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതായും മാനുഷികമായും സംസ്കരണ സൗകര്യങ്ങളിലേക്ക് കൊണ്ട് പോകുന്നുവെന്ന് എങ്ങനെ ഉറപ്പാക്കും നല്ല രീതിയിൽ തന്നെ ഉറപ്പാക്കാം കാരണം ഇന്നത്തെ കാലത്ത് നമ്മളിപ്പം ഉദാഹരണമായിട്ട് നായ്ക്കളെ പട്ടികളെ എടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകള് വീട്ടില് വളർത്തുന്ന പല തരം പട്ടികളെ വളർത്തുന്നുണ്ട് വളരെ വലിപ്പത്തിലുള്ള കൂടും വളരെ വായു സഞ്ചാരമായ ജനലുകളും എല്ലാം പണുതുകൊണ്ടാണ് നല്ലൊരു കൂടുണ്ടാക്കുന്നത് ചിലര് കൂട്ടിൽ തന്നെ ബാത്രൂം സൗകര്യം വരെ പട്ടിക്ക് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അത്രെ പെർഫെക്ടായിട്ട് ഓരോ കാര്യങ്ങള് ചെയ്താണ് ഇപ്പം ന എല്ലാ വീടുകളിലും പട്ടികളെ വളർത്തുന്നത് അപ്പം നമ്മള് എല്ലാ സ എല്ലാ സുരക്ഷിതവും അതായത് വായൂസഞ്ചാര മാർഗവും സമ്മർദ്ദമില്ലാതെ നടക്കാനും കിടക്കാനുമുള്ള സൗകര്യങ്ങളും എല്ലാം എല്ലാ കർഷകനും ചെയ്യുന്നുണ്ട് അങ് അതുപോലെ തന്നെ ഓരോ പട്ടിക്കും പട്ടിയെ വളർത്താനാണെങ്കില് ഏത് മൃഗത്തെ വളർത്താനാണെങ്കിലും അതിന് വേണ്ടുന്ന ലൈസൻസും കാര്യങ്ങളും എല്ലാം എല്ലാം എടുത്ത് വളരെ കൃത്യതയോടെയാണ് ആൾക്കാര് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാക്കാം